ഹലോ വിഗ്നേഷ് ബേക്കറി അല്ലെ ഉം ഹോട്ടൽ അല്ലെ നിങ്ങള് കൊടുത്തുവിട്ട ബിരിയാണി ഓര്ഡര് ഞാൻ ഓര്ഡര് ചെയ്ത ബിരിയാണി ബിരിയാണി ഒന്ന് പൊളിച്ചു നോക്കിയപ്പോള് അതില് മുടികള് മു മുടി ഉണ്ടായിരുന്നു പിന്നെ ആ ഫുഡ് അത്ര നന്നായിരുന്നില്ല അതുകൊണ്ട് നിങ്ങള് തന്ന ഓ ഓര്ഡര് ചെയ്യ്ത ബിരിയാണി നിങ്ങള് തിരിച്ചെടുക്കണം ഇവിടെ ആര്ക്കും അത് ഇഷ്ടപ്പെട്ടില്ല അതിനാല് വന്നു നിങ്ങള് തിരിച്ചു കൊണ്ട് പോകണം അല്ലെങ്കിൽ അത് വെറുതെ ഞങ്ങള്ക്കു വേസ്റ്റ് ആയി പോകും ഞങ്ങള് കൃാഷ് നിങ്ങള്ക്ക് തരുന്നതും അല്ല പ്രത്യേകിച്ച് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ അത് വന്നിട്ട് എടുത്ത് കൊണ്ട് പോകണം ഞങ്ങൾക്കത് ആവിശ്യമില്ല ഞങ്ങള് വേറെ ബിരിയാണി ഓര്ഡര് ചെയ്തിട്ടുണ്ട് നിങ്ങള് അത് കൊണ്ട് പോകണം